ഞാൻ കഴിഞ്ഞ ആഴ്ച്ച ഒരു ചാർജർ വാങ്ങിയിരുന്നു ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് വളരെ നല്ലൊരു ചാർജറാണ് ഫാസ്റ്റ് ചാർജിംഗ് ചാർജറാണ് വാങ്ങിച്ചത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നൂറ് ശതമാനം ചാർജ് കയറുന്ന രീതിയിലാണ് ആ ചാർജറുള്ളത് അതുപോലെ വളരെ കുറച്ചു കറൻറ് മാത്രമാണ് ആ ചാർജർ എടുക്കുന്നുള്ളു അപ്പോൾ ആ പ്രോഡക്ട് വളരെ നല്ലതായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു